ആ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ അല്ലെ ആ എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര ഛർദ്ദിയും വയറ്റിളക്കവും അത് പറയാൻ വേണ്ടി വിളിച്ചിരുന്നു ഇന്നലെ എപ്പോഴും കഴിക്കുന്നത് ചോറും രാവിലെ ദോശയും അതൊക്കെയേ കഴിച്ചുള്ളൂ പിന്നെ ഇപ്പോൾ ഉലുവക്കഞ്ഞി കുടിക്കാറുണ്ട് രണ്ട് ദിവസമായിട്ട് ഇല്ല പുറമെ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടൊന്നുമില്ല പനി കഴിഞ്ഞ ആഴ്ച പനിയും തലവേദനയും അതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ആ ആണോ ആ ആ

ആ വയറ്റു പോക്ക് ഉണ്ട് ആ അതുപോലെ ഓക്കാനം ഇടയ്ക്ക് ഇടയ്ക്ക് ഓക്കാനം ഉണ്ട് ഗ്യാസ് കുടുങ്ങിയോ എന്ന് ഒരു സംശയം ഉണ്ട് ഗ്യാസ് കുടുങ്ങിയ പോലെ വയറിന് ഒരു സ്തംഭനം പോലെ തോന്നുന്നുണ്ട് ആ ഗ്യാസിൻ്റെ ഗുളിക ഇപ്പോൾ ഇല്ല വീട്ടിൽ ഇല്ല ഞാൻ ഉലുവ വറുത്ത് വെള്ളം കുടിച്ചിരുന്നു പിന്നെ ഇഞ്ചി നീരൊക്കെ കുടിച്ചിരുന്നു ഇല്ല അത് ഇല്ല ഇല്ല ഇല്ല അതും ഇല്ല ആ ഓക്കേ ആ

ബുക്കിംഗ് ഉണ്ടോ ഡോക്ടറെ നാളെ വരുമ്പോൾ ബുക്ക് ചെയ്തിട്ട് വരണോ ആ ആ ആ ആ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയോ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ